ഹലോ ചേട്ടാ ഞാൻ കുറച്ച് നേരം മുന്നേ ഒരു ഓഡറ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കില് എന്താണെന്നറിയില്ല എനക്ക് ഗൂഗിൾ പേ വഴി ഞാൻ നോക്കിയതാണ് പൈസ അയക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് സമയായി ഞാൻ നോക്കുന്നു പക്ഷേ എന്താന്നറിയില്ല പൈസ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് എന്നോട് പറയണേ ഇതിൻ്റ അകത്തുനിന്ന് ഡെബിറ്റ് ആയിട്ടില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ ക്യാഷ് ഓൺ ഡെലിവറിയോ അല്ലെങ്കില് ഫോൺ പേ യോ അങ്ങനെ എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അവിടെ വന്നിട്ട് മേടിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഉള്ളത് ഗൂഗിൾ പേ വർക്ക് ആകുന്നില്ല അക്കൗണ്ടിൻ്റെ പ്രശ്നമാണോ നെറ്റ്വർക് ഇഷ്യൂ ആണോന്നന്നറിയില്ല അല്ലെങ്കില് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ പെയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കില് ഞാൻ വേറെ ആരെങ്കിലും ഫോണെന്നങ്ങാനും ചെയ്തുതെരാ ഓഡർ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കില് പെയ്മെൻറ്റ് പോവാത്ത കൊണ്ട് നിങ്ങളത് ഓഡർ ക്യാൻസൽ ചെയ്യരുത് ഒരു അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഉണ്ടെങ്കിലും നന്നായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടു തരുന്ന ആളുടെ അടുക്കൽ ഞാൻ പൈസ കൊടുത്ത് വിടാം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കില് ഒന്നു പറയുവോ ഓഡർ ക്യാൻസൽ ചെയ്യരുത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഞാൻ പൈസ ഇത് ചെയ്തു തരാം അല്ലേൽ ഫോൺ പേ ഉണ്ടോ സാറിന് ഈ നമ്പറിൽ തന്നെയാണോ ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അയച്ചു തരാൻ പറ്റുവോ